ആ എന്നായിരുന്നു ഹലോ സൂപ്പര് മാര്ക്കറ്റല്ലായിരുന്നോ ഞാൻ വിളിച്ചത് അവിടെ ഡിസ്ക്കൗണ്ട്കൾ ഒത്തിരി ഉണ്ടെന്ന് അറിഞ്ഞു അതേക്കുറിച്ചൊന്ന് അറിയാന് വേണ്ടിയായിരുന്നു പത്രത്തിൽ കണ്ടതായിരുന്നു ഓ ഉണ്ടല്ലേ ആ ആ പലവ്യഞ്ജനം പലവ്യഞ്ജനങ്ങള്ക്ക് ഉണ്ടോ ഡിസ്ക്കൗണ്ട് എനിക്ക് ഇത്തിരി അരിയും കടല പരിപ്പ് അ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു വേണ്ടതെ അപ്പം പിന്നെ ഇപ്പം എന്നാ ഈ സമയത്ത് വന്ന് കഴിഞ്ഞാൽ അത് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ ഉണ്ടല്ലേ വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഓഫറ്കളുണ്ടോ അവിടെ ഈ പച്ചക്കറിക്കും പലവ്യഞ്ജനത്തിനും അല്ലാതെയോ ഇനി അങ്ങനെ എന്തെങ്കിലും ക്രിസ്മസ് ആല്ല ഈസ്റ്ററെക്കെ അല്ലെ വരുന്നത് അപ്പം ഈസ്റ്ററ് പ്രമാണിച്ച് എന്തേലും സ്പെഷ്യലായിട്ട് ഉണ്ടല്ലേ ആ മി മി ഇലക്ട്രിക് സാധനങ്ങളൊക്കെ എടുക്കുമ്പം ഓഫറൊണ്ടോ ഒന്നിനൊന്ന് ഫ്രീ ആ ആ ആ ആ ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ അങ്ങനെയൊക്കെ ഉണ്ടോ ആ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ അവിടെ വൈകുന്നേരം എത്ര മണി വരെയാണ് ഈ കട തുറന്ന് പ്രവര്ത്തിക്കുന്നത് ആ രാവിലെ ഒ ഏഴിന് തുറക്കുമോ ഒൻപത് കഴിഞ്ഞത്തേനെ തുറക്കുവുള്ളു ആ ഫോണൊണ്ടോ അവിടെ ഫോണൊണ്ടോ ഫോണൊ ഫോണ് മേടിക്കാന് വേണ്ടിയായിരുന്നു ഫോണൊണ്ടോന്ന് അറിയാന് വേണ്ടിയാണ് വിളിച്ചത് ആ ഫോണിനെന്തേലും ഓഫറോ ഹ് ആ എല്ലാ കമ്പിനീടേം ഫോണൊണ്ടോ ഉണ്ടല്ലേ ആ സാംസങ്ങിന്റെ ഫോണൊണ്ടോ സാംസങ്ങിന്റെ ഫോണൊണ്ടോ സാംസങ്ങിന്റെ കമ്പനീ ഫോണൊണ്ടല്ലേ അതിനോഫറൊണ്ടോ ആ ഉണ്ടല്ലേ നേരിട്ട് മേടിച്ചാലെ ഓഫറൊള്ളോ അതോ ഓണ്ലൈനായിട്ട് മേടിച്ചാലും ഓഫറൊണ്ടോ ഓ ഉണ്ട് ഓണ്ലൈനായിട്ട് എടുക്കുമ്പം ഓഫറില്ല ഇല്ലല്ലേ ആ ഞാന് കുറച്ച് ദൂരെ നിന്നാണ് അപ്പം അതാ ഞാന് ചോദിച്ചത് ഓണ്ലൈനായിട്ട് വിളിച്ചാൽ ഓണ്ലൈനായിട്ട് എടുത്താലും പൈസയൊണ്ടോന്ന് ചോദിക്കാൻ അല്ല ഓഫറൊണ്ടോന്ന് ചോദിക്കാന് കാരണം അതാണ് ഞാന് കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത് വിളിക്കുന്നത് മുൻപേ പത്രത്തിൽ പരസ്യം കണ്ടിട്ടാണ് ഞാന് വിളിക്കുന്നത് അതാ ഞാന് ചോദിച്ചത് ഓണ്ലൈനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫറ് തരുമോന്ന് ചോദിച്ചത് തരാം അല്ലേ ആ ആ ആ ആ ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ് ചേച്ചി പാറത്തോടാണ് അല്ലേ ആ അപ്പം ബസെക്കെ ഉള്ള റൂട്ടാ അല്ലേ ആ ആ ആ ആ ആ അം ഞാൻ ഇപ്പം ഷോപ്പിൽ വന്നാൽ ചേച്ചിയെ തന്നെ കാണണമോ ഡിസ്ക്ക ആ ആ ആ എന്റെ പേര് അന്സൂന്നാണ് അന്സു ആന്സൂന്നാണ് എന്റെ പേര് ഒന്ന് പറഞ്ഞ് വെച്ചേക്കണേ ആ ആ ആ ആ ശരി ചേച്ചിയെ ബുധനാഴ്ച്ച ദിവസം ഡിസ്ക്കൗണ്ടൊണ്ടോ എല്ലാ ബുധനാഴ്ചയും ഉണ്ടോ ആണല്ലേ ആ ആ ആ എല്ലാ സാധനങ്ങള്ക്കും ഡിസ്ക്കൗണ്ടൊണ്ടല്ലേ ആ ആ ആ എന്നാൽ ശരി ചേച്ചി ഞാൻ അങ്ങ് വന്നേക്കാം നാളെ